ഹലോ ആ മാത വെജിറ്റബ്ൾസ് കടയാണോ ആ ഞാൻ വിളിച്ചത് എനിക്ക് നിങ്ങളുടെ കടയിൽ നെല്ലിക്ക ഉണ്ടോ ആ ചക്കയോ ആ പിന്നെ പഴമുണ്ടോ ഏത്തക്ക ഏത്തൻ ഏത്തൻ ആ നാളത്തേക്ക് ഒറ കെട്ടിയ ആ ഉണ്ടല്ലേ ആ പച്ചപ്പഴമോ മോറീസ് ആ ഓക്കെ ഓക്കെ ആ ഇല്ല ഇല്ലെനിക്ക് മോറിസിന്നും ഏത്തൻ മതി ഏത്തൻ കിട്ടിയാലും മതി ആ ഏത്തൻ മതി എത്ര രൂപയാണ് ഏത്തന് എഴുപത്തഞ്ച് രൂപ ഓക്കെ ആ എനിക്കൊരു മൂന്ന് കിലോ വേണം ഏത്തൻ ചക്ക ഒരു മീഡിയം സൈസ് ചക്ക ആ ആ ഒരെണ്ണം മതി ആ വരിക്ക ചക്കയാണ് ആ നെല്ലിക്ക ഒരു നാല് കിലോ വേണമെനിക്ക് ആ ഒരു കിലോയ്ക്ക് എത്ര രൂപയാണ് അൻപത് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടോ ഓ വെ ശനിയാഴ്ച കിട്ടിയാലും മതി അത് കുഴപ്പമില്ല എനിക്ക് ഫ്രഷ് സാധനം കിട്ടിയാൽ മതി ആ ആയിരം രൂപ അപ്പം കുഴപ്പമില്ല ആ ആ എനിക്ക് ശനിയാഴ്ച കൊണ്ട് തരണം എനിക്ക് ഞായറാഴ്ച കൊണ്ട് പോവാൻ വേണ്ടിയായിരുന്നു ആണോ അപ്പോൾ ഞാൻ അഡ്രെസ്സ് ഡീറ്റെയിൽസ് പിന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഒന്നും കൂടെ വിളിക്കാം വാട്സാപ്പ് ചെയ്താൽ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ